ഒരു പക്ഷേ ഇതുപോലെയുള്ള വലിയ പാർട്ടികൾ ആഘോഷങ്ങൾ മദ്യപാനം ഇതൊക്കെ ഒരു പക്ഷേ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിൽ പങ്കെടുത്തിട്ടില്ല പക്ഷേ ഒരു ഗ്രാമത്തിൽ വസിക്കുന്ന ഒരാൾക്ക് ഇതുപോലത്തെ ക്ലബ്ബുകളിലുള്ള പരിപാടികൾ പാർട്ടികൾ മദ്യപാനം തീർച്ചയായിട്ടും ഉണ്ടാവില്ല കാരണം അവർ ഇങ്ങനത്തെ ഒരു സമൂഹത്തിൽ അല്ലലോ ജീവിച്ചു ജീവിക്കുന്നത് അവർ വളരെ ഡിഫ്ഫറന്റായിട്ടുള്ളൊരു പട്ടണവും ഗ്രാമവും തമ്മിൽ ഒരുപാട് ഡിഫ്ഫറൻസ് ഉണ്ടല്ലോ അപ്പോൾ അവരൊരിക്കലും അതിലൊന്നും പോയി പങ്കെടുക്കില്ല അതുപോലെ തന്നെ അവർക്ക് അതൊന്നും അംഗീകരിക്കാനും കഴിയില്ല ഒരു പക്ഷേ അവർ അങ്ങനെ ചെയ്യുന്നവരോട് അവർക്ക് ഒരിഷ്ടവും ഉണ്ടാവില്ല കാരണം അവർ ഒരിക്കലും ഇതുപോലത്തെ സാഹചര്യമൊന്നും കണ്ടിട്ടുണ്ടാവില്ല മദ്യപാനം ഒരു പക്ഷേ ഗ്രാമങ്ങളിൽ ഉള്ളവരാണെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുമായി ഒരു പക്ഷേ വല്ല മരച്ചുവടുകളിൽ മരച്ചുവട്ടുകളിൽ ഇരുന്നിട്ട് സംസാരിക്കുകയായിരിക്കും അവർക്ക് സന്തോഷം നൽക്കുന്ന കാര്യങ്ങൾ പക്ഷേ പട്ടണത്തിൽ ആണെങ്കിൽ അത് വേറൊരു രീതിയിൽ ആഘോഷിക്കുന്നു അപ്പോൾ ഗ്രാമത്തിൽ വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു ചിലവർക്ക് അത് അംഗീകരിക്കാൻ കഴിയും പക്ഷേ പക്ക നമ്മളൊരു ഗ്രാമത്തിൽ വസിക്കുന്നൊരാൾക്ക് പെട്ടന്ന് ഈ ഒരു സാഹചര്യമൊക്കെ അവർക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല